മാഡം മേ ഐ കം ഇൻ ആ ആ ഓക്കേ എനിക്ക് ഒരു പേർസണൽ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെ അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റുക നമുക്ക് ഇപ്പോൾ ഏജ് ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണ് അല്ലെ ഓക്കേ ഓക്കേ പിന്നെ എന്താണ് ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് സാലറി സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വേണോ ഇത് എടുക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് വേറെ ആൾക്കാര് വേണമല്ലേ അത് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ഇവിടുന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും ആയാൽ മതിയോ അതെങ്ങനെയാണ് അതെലെ ആ അവർക്ക് ഈ ഗ്യാരണ്ടർക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ ഏജ് ഇത്രേ ഏജിനുള്ളിൽ വേണമെന്നോ ഓക്കേ അതെലെ ഈ പേർസണൽ ലോൺൻ്റെ ഇത് തന്നെ അല്ലേ ഈ സംഭവം തന്നെ അല്ലേ ഇത് ആ നമുക്കിതിപ്പോൾ ഇത് ഇപ്പോൾ എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെ കിട്ടും പേർസണൽ ലോൺ അതെ അല്ലെ ഇതിനിപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ഇപ്പോൾ ഇനി അക്കൗണ്ടിൽ നമ്മള് അക്കൗണ്ടിൻ്റെ ഇത് തരണമല്ലോ കോപ്പി ബാങ്ക് പാസ്സ്ബുക്കിൻ്റെ നമുക്കിപ്പോൾ ഇതിലിപ്പോൾ ബാങ്ക് പാസ്ബുക്കിൻ്റെ തരുമ്പോഴേ അതിൻ്റെ മറ്റേ ഫുൾ പേജ് മൊത്തം വേണോ നമുക്കിപ്പോൾ അതിൻ്റെ സാലറി കയറിയത് അറിയാൻ ട്രാൻസാൻഷനൊക്കെ അറിയാൻ അത് എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെ വേണെമെന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആറ് മാസം കറക്റ്റ് ആയിട്ട് പൈസ വന്ന് പോയികൊണ്ടിരിക്കണം അല്ലെ അത് എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തരുവാണെങ്കിൽ ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ട് പാസ്സ് ആവും ഫോം എന്തെങ്കിലുമുണ്ടോ

അങ്ങനെയാണല്ലേ അപ്പോ നമുക്ക് ഇത് എങ്ങനെയാ ഇതിൻ്റെ അടവ് തിരിച്ചടവ് എങ്ങനെ വരുവ

ഇതിപ്പോ പലിശ എത്ര വരും എങ്ങനെയാണ് അത് അതെലെ ഓക്കേ ഇതിപ്പോ പതിനെട്ട് ശതമാനംന്ന് പറയുമ്പോ നമുക്കിപ്പോ അടവ് ഏതെങ്കിലും തെറ്റിന്ന് പറഞ്ഞാൽ പിന്നേം പലിശ കൂടുലെ അങ്ങനെയാണ്ലെ ഓക്കേ അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് ലോൺ കിട്ടുമെന്നാ പറഞ്ഞെ ഒരാഴ്ചകൊണ്ട് നമുക്ക് ആ ഒരാഴ്ചകൊണ്ട് കിട്ടുംലെ നമുക്ക് ഇതിൻ്റെ കോപ്പിയൊക്കെ ഇവിടെ തന്നുന്നു പറഞ്ഞാൽ ഇതിപ്പോ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റിസൊക്കെ വിളിച്ചു പറയല്ലോലെ ഓക്കേ ആ അത് തരാം അത് കുഴപ്പമില്ല ഓക്കേ അത് റെഡി ആയിട്ടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഓക്കേ ശരി ശരി